അതേ ആരായിരുന്നു ഓക്കെ ഓക്കെ ഒക്കെ ആ നിൻ്റെ എൻ്റെ ഡിസൈനും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ ആ ആ എത്ര റൂമൊക്കെയാണുദ്ദേശിക്കുന്നത് എത്ര റൂമാണുദ്ദേശിക്കുന്നത് ആ ആ മ്മ് മ്മ് ഓക്കെ

മ്മ് ആ നമുക്കെന്തായാലും റെഡിയാക്കാം നാല് റൂമിലും ബാത്ത്റൂമും കാര്യങ്ങളൊക്കെയാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസ് ആവാൻ സാധ്യതയുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഓക്കേയാണ്

എത്ര സെൻറ്റ് സ്ഥലം ഉണ്ട്

ആദ്യം നമ്മൾ നമുക്ക് ഒരു കൂടിപ്പോയാൽ നാല് ബെഡ്റൂമും അറ്റാച്ചിഡ് ബാത്ത്റൂമും എല്ലാ കാര്യങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്തൊക്കെയാകും ലോ ബഡ്ജെറ്റാണുദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ വേറെ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയുള്ള ഒരു വീടാണെങ്കിൽ നമുക്കെങ്ങനെ പോയാലും പത്തിരുപത്തഞ്ചുലക്ഷം രൂപയാവും മ്മ് പിന്നെ നമ്മൾ ഓരോരുത്തരെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും മ്മ് അതാ മ്മ് ആ അതൊക്കെ നമുക്ക് റെഡിയാക്കാം ഞാനെൻറ്റെയൊരു പണിക്കാരനെ വിടാം സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്നു നോക്കിയിട്ട് പ്ലാനും ഇതൊക്കെ വരച്ചു കാണിക്കേണ്ടേ മ്മ് ഇനിയിപ്പോൾ ഉറപ്പാണെങ്കിൽ നിങ്ങളൊന്ന് എല്ലാവരുമായിട്ടൊന്ന് ഇതായിട്ട് എന്നെ ഒന്ന് വിളിക്ക് അപ്പോൾ നമുക്ക് സ്ഥലം ഒക്കെ ഒന്ന് കണ്ടിട്ടൊന്നു വേണം ആ ഞാൻ വാട്ട്സപ്പിലയക്കാം ഇത് ഈ ഈ ഇതിൽ വാട്ട്സപ്പില്ലേ ആ എന്നാൽ അയച്ചിടൂ കേട്ടോ ആ ഒക്കെ എന്നാൽ മ്മ്